നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ നമ്മൾ പോവുന്ന സ്ഥലം അവിടെ നമ്മൾ സേഫാണോ പോകുന്ന സ്ഥലം അവിടെ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാനുണ്ടോ പോയ ആളുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തു നിന്ന് ആരെങ്കിലും ഇപ്പം നമ്മളെ ഫ്രണ്ട്സോ ആരെങ്കിലും പോയ ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമായിരിക്കും ഒരു പക്ഷേ അത് അപ്പം നമ്മൾ അത് പോവുക പോകണ സമയത്ത് നമ്മൽ അതിൽ പോയ ആളുകളുമായിട്ട് നമ്മൾ ഒന്ന് സംസാരിക്കും പിന്നീട് നമ്മൾ അവിടെ പോയി അവിടുത്തെ ക്ലൈമറ്റെന്താ അതൊക്കെ നമ്മളറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോയ ആളുകളുമായിട്ടത് സംസാരിക്കും അപ്പം നമ്മൾ അത് ഓക്കേയാണെങ്കിൽ അവിടുത്തെ തണുപ്പ് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ നമ്മളെ ഫാമിലിയായിട്ടാണ് കൂടുതലെപ്പോഴും യാത്ര പോവാനാഗ്രഹിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽക്കൂടി എപ്പോഴും നമ്മൾ നല്ല സേഫായിട്ട് പോണത് നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഹസ്ബൻ്റും കുട്ടികൾക്കും പോവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പോവുന്നതും അപ്പം നമ്മളിപ്പോൾ ഓരോ ഇതുതന്നെ നമ്മളൊരു വയനാട് പോയി അപ്പം ആ വയനാട് നമ്മൾ പോകണ സമയത്ത് നമ്മളവിടെ ഏറ്റവും നല്ല കാഴ്ച്ചകൾ കാണാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ടൊന്ന് നീന്തി കളിക്കാൻ ആയിരുന്നെങ്കിൽ അവർ നല്ല സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അതൊക്കെ സേയ്ഫാണ് എന്നുള്ള രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളൊരു സ്ഥലം നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പോകുന്ന വഴിയപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതലറിഞ്ഞ് ഇപ്പോൾ എന്താ ഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലതിനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞാണ് നമ്മൾ പോവുന്നത് അങ്ങനെ നമ്മൾ പോയി നമ്മൾ മാക്സിമം ആ യാത്ര ഏറ്റവും നല്ല രീതിയിലാക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കലുണ്ട്